പ്രദേശങ്ങളിലുള്ള കരകൗശല മേഖലകളിലും ഉള്ളവർ അവരവരുടെ ലൈസൻസുകൾക്കും നിയമങ്ങൾക്കും അനുസൃതമായിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് കലാപരമായി പല സൃഷ്ടികളും കലാസൃഷ്ടികൾ ഒക്കെ നമ്മൾ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് കോപ്പി റൈറ്റ് വരാതെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ മറ്റ് മ്യൂസിക്കുകളൊന്നും അവരെ ഇടയാതെ കൃത്യമായി എഡിറ്റിങ്ങിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് അവർക്ക് അവരുടേതായ പ്രത്യേകമായ ലോഗോകളും വ്യാപാരം ചെയ്തു വരുത്തിയ വ്യാപാര മുദ്രകളും ഒക്കെ അവർ ഈ കലാ കരകൗശലങ്ങളിൽ അവർ പല തരത്തിലുള്ള ലോഗോകളും മുദ്രകളും തന്നെ ഉണ്ടാക്കുന്നുണ്ട്